മലയാളികൾ അവരുടെ സാംസ്കാരിക പാരമ്പര്യങ്ങൾ ആഘോഷിക്കാനും ആദരിക്കാനും അവരുടെ ഭാഷ പല വിധത്തിലാണ് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് ഒരു ഉദാഹരണത്തിന് പറയാം ഇന്നത്തെ പ്രധാനപ്പെട്ട മലയാളികളെ ഏറ്റവും വലിയ ദേശീയ ഉത്സവമായിട്ട് കാണുന്ന ഒരു ഉത്സവമായി കേരളീയ ഉത്സവമായി കാണുന്ന ഓണം വളരെ മനോഹരമായ രീതിയിൽ വഞ്ചിപ്പാട്ടിൻ്റെ താളത്തോടും വളരെ മനോഹരമായ കഥകളി സാമൂഹിക സാംസ്കാരികങ്ങള പാരമ്പര്യങ്ങളെ വിളിച്ചോതികൊണ്ട് ഒരു വലിയ ഒരു ഘോഷയാത്ര തന്നെയാണ് അന്ന് നടക്കുന്നത് ഓണത്തിൻ്റെ ദിവസം അത് സമൂഹത്തിലെ ഒരു ഒന്നിച്ചുള്ള ഒരു വലിയ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായി തന്നെയാണ് സമൂഹം കേരള സമൂഹം എവിടെ താമസിച്ചാലും അവർ നമ്മുടെ ഓണം എന്ന വിശേഷ ദിവസത്തെ ഒരിക്കലും മറക്കാനാവാതെ നെഞ്ചോട് ചേർക്കുന്ന ഒരു പ്രവണത നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അത് പല വിധത്തിലുള്ള കലാരൂപങ്ങൾ സമൂഹത്തിലെ നാനാജാതി മതസ്ഥരെ ഒരുമിച്ചു ഇരുത്തിക്കൊണ്ട് അവരുടെ വിശ്വാസത്തിലുള്ള പല കലാരൂപങ്ങൾ അവിടെ അണിനിരത്തിക്കൊണ്ട് സാമൂഹികവും സാംസ്കാരികവുമായി നിന്നു കൊണ്ട് സമൂഹത്തിൽ സമൂഹത്തിൽ ജനം ഒന്നാണെന്നും സമുദായത്തിന് അപ്പറം ജനങ്ങളുടെ ഒരു വലിയ ഒരു ആഘോഷമാക്കി മാറ്റിക്കൊണ്ട് ഒരുമയുടെ സാംസ്കാരികമായി ഒരു ഉദഹരണം ഒരു സാമൂഹ്യ സാംസ്കാരികമായി ഒരു രംഗ സമൂഹത്തിൻ്റെ ഒരു ഐക്യമായി മാറ്റിക്കൊണ്ടാണ് ഓണം സമൂഹം ആഘോഷിക്കുന്നത് നാനാജാതി മതസ്ഥരുണ്ടെങ്കിലും ക്രൈസ്തവ ദേവാലയങ്ങളിലാണ് എപ്പോഴും തിരുനാളുകൾ നടത്തുന്നു സമൂഹത്തിലെ വലിയ ഒരു ഐക്യത്തിൻ്റെ പ്രതീകമാണ് അവർ അവിടെ നമുക്ക് വിളിച്ചോതുന്നത് കാണിക്കാൻ സാധിക്കുന്നത് പല തരത്തിലുള്ള സന്ദേശം നൽകി കൊണ്ട് ഒരു തിന്മ നടക്കുമ്പോൾ പല തരത്തിൽ സന്ദേശം നൽകിക്കൊണ്ട് സമൂഹത്തെ കൂടുതൽ ഒന്നിച്ചു നടത്താനായില്ല അവിടെ നടത്തുന്ന നാടകങ്ങളിലൂടെയും ഒക്കെ സമൂഹത്തെ വലിയ ഒരു സന്ദേശം നൽകുകയാണ് സമൂഹത്തിൽ നന്മ നിലനിൽക്കുവാനും സാമൂഹിക കാഴ്ചപ്പാടുകളെ ദൈവിക ചിന്തകളിൽ വളരുവാനായിട്ടും വളരെ പ്രചോദിപ്പിക്കുന്ന ഒരു രംഗമാണ് അവിടെയും കാണുന്നത് അമ്പലങ്ങളിലാണെങ്കിൽ പോലും അവരുടെ അവരുടെ ദേവന്മാരുടെ വേഷങ്ങൾ ധരിച്ചു കൊണ്ട് കാവടി തുള്ളലും കളിയാട്ടങ്ങളും അതുകൊണ്ട് സർഗോൽസവം സമൂഹത്തിൽ വലിയ ഭാഷകളുടെ പ്രചോദനം അത് ആംഗ്യഭാഷയിലൂടെ ആയാലും ചിലപ്പോൾ അത് പല രീതിയിലുള്ള പ്രവർത്തനങ്ങളുള്ള സമൂഹത്തെ വലിയ ഒരു മുഖ്യധാരയിലേക്ക് എത്തിക്കുന്ന ആഘോഷങ്ങൾ വരെ സന്തോഷത്തിൻ്റെ ഒരു പ്രതീകമായി മാറ്റുന്നതിനും ഈ കലാസാംസ്കാരികങ്ങൾക്ക് പാരമ്പര്യം വലിയ ഒരു പങ്ക് വഹിക്കാൻ സാധിക്കുന്നുണ്ട് ഇത് ജനങ്ങൾ പരസ്പരം അംഗീകരിക്കാനും മനസ്സിലാക്കാനും ആദരിക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു എന്നതാണ് ഏറ്റവും വലിയ ഒരു മാനദണ്ഡം തന്നെ പരസ്പര ഐക്യമാണ് ഇവിടെ കാണിച്ചു തന്നത് സാംസ്കാരിക രംഗങ്ങളിൽ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എന്നതിൽ ഉപരി ഒരു സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് ഒറ്റക്കെട്ട് പ്രവർത്തിക്കാൻ വേണ്ടി ഈ ആഘോഷങ്ങളെ പാരമ്പര്യങ്ങൾ സമൂഹത്തിന് വലിയ ഒരു പ്രചോദനം നൽകി കൊണ്ടാണ് മുമ്പോട്ട് നീങ്ങുന്നത് കാലാകാലങ്ങളിൽ വരുന്ന മാറ്റങ്ങളെ അതിജീവിച്ചു കൊണ്ട് സമൂഹനന്മയ്ക്ക് വേണ്ടി കഴിഞ്ഞു പോയ കാലങ്ങളിലെ മഹാ വ്യക്തികൾ നൽകിയ പാരമ്പര്യം സമൂഹ മധ്യത്തിലേക്ക് എത്തിച്ചു കൊണ്ട് വിളിച്ചോതുന്ന കലാരൂപങ്ങളും നിശ്ചല ദൃശ്യങ്ങളും ദൃശ്യ ആവിഷ്കര്യങ്ങളും ദൃശ്യവിഷ്കാരങ്ങളിലൂടെ സമൂഹത്തെ മാറ്റിമറിക്കുവാനായിട്ട് ഇവർക്ക് സാധിക്ക ഈ സമൂഹത്തി വലിയൊരു പ്രചോദനം നൽകാനായിട്ട് ഇത് സാധിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ ഒരു പ്രചോദനം സമാധാനത്തിന് സമാധാനത്തിൻ്റെ കാഴ്ചപ്പാടിൽ ലോകജനതയെ നയിക്കുക എന്നതാണ് സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ആഘോഷം ഏറ്റവും വലിയ ഒരു ഉദ്ദേശം തന്നെ അതുകൊണ്ട് ആഘോഷങ്ങളുടെ വലിയ ഒരു ആഘോഷങ്ങളും ആദരിക്കും ആദരിക്കലും ആ പരസ്പര അംഗീകാരത്തിന് ബഹുമാനത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ആഘോഷം കേരള മലയാള മലയാളികൾ സാംസ്കാരിക പാരമ്പര്യങ്ങൾ ആഘോഷിക്കൽ ആഘോഷം ആദരിക്കുന്നതിനും വേണ്ടി വലിയ ഒരു പങ്ക് ഈ ഭാഷ ഭാഷകൊണ്ട് വിവിധ തരത്തിലുള്ള ഭാഷകൾ കൊണ്ട് ഉപയോഗിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ ചാരിതാർഥ്യം നൽകുന്ന ഒരു പ്രവർത്തി എന്നത് നിസ്സംശയം നിസ്സംശയം പറയാൻ സാധ്യമാവുന്നതാണ്